പ്രധാനമന്ത്രിയുടെ ജൻ ധൻ യോജന എന്ന പദ്ധതിയെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് ഇതിൽ പ്രധാനമായിട്ടും ഈ എന്തൂട്ടാ സ്കീമിന് കീഴിൽ മറ്റൊരു അക്കൗണ്ട് ഇല്ലാത്തൊരു വ്യക്തിക്ക് ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ ശാഖയിൽ ഒരു അടിസ്ഥാന സേവിങ്ങ് ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നൊരു പദ്ധതിയാണ് ജൻ ധൻ യോജന എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാനമായിട്ടും ആനുകൂല്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ബാങ്കിൽ ബാങ്ക് ഇല്ലാത്ത വ്യക്തിക്ക് ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഇതില് മിനിമം ബാലൻസിൻ്റെ ആവശ്യകത ഇല്ല അതുപോലെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന പണത്തിന് പലിശ ലഭിക്കുന്നുണ്ട് അക്കൗണ്ടിൻ്റെ ഉടമയ്ക്ക് റുപ്പേ സ് ഡെബിറ്റ് കാർഡ് അതും നൽകുന്നുണ്ട് പിന്നെ അപകട ഇൻഷുറൻസ് ആദ്യം ഒരു ലക്ഷം രൂപയായിരുന്നു ഇപ്പം അത് രണ്ട് ലക്ഷം രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഒരു രൂപ വരെ ഓവർഡ്രാഫ്റ്റ് സൗകര്യം ഉള്ള അക്കൗണ്ടുകൾക്ക് അക്കൗണ്ടിൻ്റെ ഉടമകൾക്ക് പതിനായിരം രൂപ വരെ ലഭ്യമാവുന്നുണ്ട് പിന്നെ ഇത് എനിക്കറിയാവുന്ന കുറച്ച് പേർ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് അവർ എല്ലാവരും ഇത് വളരെ അധികം നല്ല ഒരു നല്ല അഭിപ്രായമാണ് ഇവർക്കുള്ളത്